ഹലോ ആ ഞാൻ കോഴിക്കോടുനിന്ന് വരുന്നതായിരുന്നേ അപ്പോൾ വയനാടിലത്തെ സ്ഥലങ്ങളൊക്കെ ഏതൊക്കെയാണ് കാണാനൊക്കെ ഉള്ളതെന്നറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണേ ഞങ്ങൾ ഒരാഴ്ചത്തേക്കുള്ള ട്രിപ്പ് ആണ് ഉദ്ദേശിക്കുന്നത് ഓക്കേ അപ്പോൾ അതെല്ലാം അപ്പോൾ റേറ്റ് എങ്ങനെയാണ് ഞങ്ങളൊരു പത്ത് പേരുണ്ടാവും ഒരാഴ്ചത്തേക്കാണോ

ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണോ അല്ലെങ്കിൽ ഓക്കേ അപ്പോൾ ഇരുപത്തയ്യായിരത്തിൽ കൂടുതൽ ആവുമോ

ഓക്കേ ഓക്കേ ഓക്കേ പിന്നെ ഇപ്പോൾ ഒരു എല്ലാ സ്ഥലങ്ങളും ഒരു ദിവസം കൊണ്ട് തീരുന്നതാണോ

ആ ഓക്കേ ഓക്കേ അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാവരോടും ചോദിച്ചിട്ട് അന്വേഷിച്ചിട്ട് വിളിക്കാം കേട്ടോ